ഹലോ ഹലോ പറഞ്ഞോളൂ ആ പറഞ്ഞോളു ആ വയനാട് എവിടെ ആയിട്ടായിരുന്നു നിങ്ങളുടെ വീട് മാനന്തവാടി ഇങ്ങനെ നിങ്ങളെ അവിടെ വന്ന് പിക്ക് അപ്പ് ചെയ്യുന്നത് അങ്ങനെ ആണോ ആ ഓക്കെ ഓക്കെ അപ്പം വയനാട് ടു എത്ര എങ്ങോട്ടാണ് മൂന്നാറല്ലേ എങ്ങനെ എത്ര പേരുണ്ടാവും മ്മ് അപ്പം ഒരു ചെറിയ വണ്ടി മതിയാകും അല്ലേ എങ്ങനെ രണ്ട് പേർക്ക് കാറാണ് സ്യൂട്ട് ഓക്കെ ആ ഓക്കെ മ്മ് അപ്പോൾ അപ്പോൾ നമുക്ക് ബസ് ഉണ്ടാകുമല്ലോ ആ എങ്ങനെ കല്യാണ ടൂറാണോ അല്ലെങ്കിൽ ഫാമിലി ടൂറാണോ

ആ ഒരു ട്രിപ്പും കൂടെയല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് പുറത്ത് നിന്നാണോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നതാണോ

ഒരു മുപ്പത് ആൾ ഉണ്ടാകുമല്ലെ

ആ ഓക്കെ ഓക്കെ ആ അപ്പോൾ എത്ര ദിവസത്തെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് മൂന്ന് ദിവസം ആ ഓക്കെ ഓക്കെ അപ്പം മൂന്നു നൈറ്റും മൂന്ന് ആഫ്റ്റർനൂണുമല്ലെ മൂന്നു മോർണിംഗും മൂന്നു നൈറ്റും അപ്പോൾ നമ്മുടെ പാക്കേജ് വരുന്നത് എങ്ങനെ ആണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു വൺ വൺ ഹൺഡ്രഡ്സ് ആൻഡ് അല്ല വൺ തൌസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് ആ ഡിസ്കൗണ്ട് ആ നോക്കാം മ്മ് നോക്കാം നോക്കാം ഓക്കെ